പതിനേഴ് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാല്ല് രണ്ടേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഏഴ് ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് എട്ട് പത്ത് രണ്ടായിരത്തി പത്തൊൻപത്